ഹലോ സാറേ കുറിച്ചി പോലീസ് സ്റ്റേഷൻ ആണോ ആ ഞാൻ സാറേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണെ ഏ കുറച്ചു ദിവസം ആയിട്ടേ എനിക്ക് ഫോണിനകത്തുകൂടി ഇങ്ങനൊരു എൻ്റെ ഫോണിൽ ഒരാൾ വിളിക്കുന്നു ഞാൻ ഇച്ചിരി പൈസ ആ പുള്ളിക്ക് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓ ഇല്ല സാറേ ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ വേടിച്ചിട്ടില്ല എനിക്ക് അത് ഓർക്കുന്നില്ല പുള്ളി പറയുന്നത് എന്തോ പൈസ കൊടുത്തില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്നാണ് പറയുന്നത് ആ ആ അപ്പോൾ സാറേ എനിക്ക് ഞാൻ എന്നാ ചെയ്യേണ്ടത് സാറേ ഓ ഇല്ല നമുക്ക് അങ്ങനെയൊരു പരിചയവും ഇല്ല ഞാൻ ഇതെൻ്റെ ഫോണിലങ്ങനെ നമ്പരും കാര്യവും ഒന്നുമില്ല നമുക്ക് അറിയത്തുപോലും ഇല്ല ആ അതെ അതെ ഓ അങ്ങനെ അങ്ങനെ ഒരു ഓ അങ്ങനെ ഇല്ല സാറേ എനിക്ക് അങ്ങനെ ആരും ആയിട്ട് അങ്ങനെ മുൻ വൈരാഗ്യങ്ങളോ അങ്ങനെ നമ്മൾ സാമ്പത്തിക ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല സാറേ ഞാൻ സ്റ്റേഷനിലോട്ട് വരണോ ആ എന്നാൽ സാറെ ഞാൻ എന്നാൽ വരാം എത്ര മണിയാകുമ്പഴത്തേനുവാ വരേണ്ടേ ആണോ ഉണ്ടല്ലേ ആ ആ എന്നിട്ട് എന്നാൽ സാറേ ഞാൻ വരാവേ ആ ഹലോ ഇല്ല സാറേ എനിക്ക് അങ്ങനെയൊരു മുൻ പരിചയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ ഇപ്പോൾ ഇന്നലെയാണ് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നത് ഞാൻ പൈസ ഇല്ല എനിക്ക് അങ്ങനെ അറിയാവുന്നതായിട്ട് തോന്നുന്നില്ല എന്താണെന്നുവെച്ചാൽ ഞാൻ ഇന്നലെ ഇന്നലെയല്ലേ എനിക്ക് കോൾ വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന പോലെ പൈസ കൊടുക്കാനായിട്ടുണ്ട് അത് തരണം തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ടു വരും അത് ജീവന് തന്നെ ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ച് അന്നേരം ഞാൻ ഇങ്ങനെ ഹസ്ബൻറ്റിനോട് പറയുമ്പം പറഞ്ഞു നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനാണ് ഞാൻ സാറിനെ ആ ഞാൻ സാറിനെ വിളിച്ചത് അപ്പം സാറ് എപ്പം കാണും സാറേ അവിടെ ഉണ്ടോ ആണല്ലേ സാറേ ഞാൻ നമ്പര് എന്നാൽ സാറിന് തരാമായിരുന്നു ആ പുള്ളി എന്നെ വിളിച്ച നമ്പര് ആ ആ ആ എന്നിട്ട് ഞാൻ ആ ആ എന്നിട്ട് ഞാൻ വന്ന് കമ്പ്ലൈൻറ്റ് എഴുതിത്തരണം അല്ലേ ആ എന്നിട്ട് ഞാൻ ആ തരാം അപ്പോൾ സാറിനെ ഞാൻ വാട്സാപ്പില് ഈ നമ്പര് അയച്ചാൽ മതിയോ എന്നെ വിളിച്ച പുള്ളിയുടെ ആ ആ ആ എന്നാൽ ഞാൻ നേരിട്ട് സാറിനെ കാണാൻ വരാം ആ ആ ആ സാറേ ആ സാറേ ഉപേക്ഷ വിചാരിക്കല്ലേ എന്നെ സഹായിക്കണെ കേട്ടോ അതെൻ്റെ എൻ്റെ ആ ആ അതല്ലേ ആ അല്ലെങ്കിലും എൻ്റെ അത് ജീവിതത്തെ തന്നെ അത് ബാധിക്കും അതുകൊണ്ടാ സാറിനോട് ഞാൻ പറഞ്ഞത് കേട്ടോ എന്നാൽ സാറേ എന്നാൽ ഞാൻ സാറെ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങോട്ട് വരാവേ

ആ ശരി സാറേ എന്നാൽ ഞാനേയ് അങ്ങോട്ട് വരാം കേട്ടോ സാറേ സാർ അവിടെ കാണുമല്ലോ ആ ആ ആ ആ ശരി സാറെ ശരി ഓക്കെ ഓക്കെ ഓക്കെ